ഇവിടെ ഞങ്ങൾക്കടുത്തു തന്നെ ഹെൽത്ത് ക്ലിനിക്കുണ്ട് ആശുപത്രികളുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യദായക ഇതിന്റെ കീഴിലുണ്ട് അപ്പോൾ നമുക്കെവിടെയെങ്കിലും അസുഖം വരുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ റ്റീ ബി അതുപോലെയുള്ള റ്റൂബർക്കുലോസിസ് ഒക്കെ പോലെയുള്ള രോഗങ്ങൾ വരുവാണെങ്കിൽ ആ വീടുകൾ വന്നു സന്ദർശിയ്ക്കുക അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിയ്ക്കുകയും അവർക്കാവശ്യമുള്ള ടാബ്ലെറ്റുകൾ അതെവിടെച്ചെന്നാൽ കിട്ടുമെന്നും അതേത് ഡോക്ടറെ കാണണമെന്നും ഹെൽത്ത് സെൻ്ററുകളിൽ പോകണമെന്നും എല്ലാം നമുക്ക് ആ ഒരു ക്ലാസ് തരികയും അതനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിനനുസൃതമായ ഫുഡ് പോഷക മൂല്യമുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ടോയെന്നന്വേഷിക്കുവാനുമൊക്കെ ഈ ആരോഗ്യ ദായക എന്നു പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് ഓരോ അസുഖത്തിനും ഓൺലെ എന്തെങ്കിലുമസുഖങ്ങളുണ്ടൊ കോളറ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നു നോക്കുന്നതിനും കിണറുകളിലെല്ലാം ബ്ലീച്ചിങ് പൗഡർ ഇടുകയും വെള്ളം ശുദ്ധിയാക്കുകയും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളെല്ലാം നശിപ്പിച്ച് കളയുകയും കൊതുക് കൊതുക് ഡെങ്കിപ്പനിയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുകയും അതു കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുകുണ്ടാകാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തത് നമുക്ക് ബോധവത്ക്കരണം തരികയും ചെയ്യുന്നൊരു അവസ്ഥയിലാണിപ്പം നമ്മുടെ ഈ പ്രദേശം കടന്നു പോകുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ആരോഗ്യ പരിപാലകരെയെല്ലാരും നോക്കുന്നതുകൊണ്ടു തന്നെ ഇവിടെ വലിയ വലിയ അസുഖങ്ങളൊന്നും വരാതെ ഡെങ്കുപ്പനി അതുപോലെ കോളറ അതുപോലെ വലിയ അസുഖങ്ങളൊന്നും വരാതെ കടന്നു പോകുന്നുണ്ട്